ഹലോ ആ പറ പറഞ്ഞോ ഉണ്ടല്ലോ ആ ഒരു കുഴപ്പമില്ല എത്ര കുഴപ്പമില്ല ഉണ്ട് തേങ്ങ ഉണ്ട് വില ഇപ്പോൾ എൺപത് രണ്ടു സൈസിൽ കൊടുക്കും പൊതിച്ചതായിട്ട് കൊടുക്കും പൊതിക്കാത്തതും കൊടുക്കും പൊതിക്കാത്തത് ആ കുഴപ്പമില്ല പൊതിച്ചത് ഉണ്ട് പ അപ്പ അത് പൊതിച്ചത് പൊതിക്കാത്തത്തിന് ഒരു തേങ്ങയ്ക്ക് മുപ്പത്തിരണ്ടു രൂപ ആണ് മുപ്പത്തി രണ്ട് ഇല്ല ഇല്ല തേങ്ങ തേങ്ങ നല്ല ക്ക്വാ ആ ക്വാളിറ്റി ആണ് നല്ല ബെസ്റ്റ് തേങ്ങ ആണ് ഒരു പിന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണ്ടിവരും അറുന്നൂറ് എണ്ണമോ ആ ആ അറുന്നൂറ് എണ്ണം പക്ഷേ നമ്മൾ സാധാരണ കുറച്ച് കൊടുക്കാറില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എത്ര എത്രയെണ്ണം വേണം എന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ആ പക്ഷേ ഇവിടെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വരാമല്ലോ ഇവിടെ വരാൻ സാധിക്കുമോ

ആ മൂപ്പത്തണ്ണം പക്ഷേ ഞാൻ നോക്കാം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു ഇപ്പോൾ അറുന്നൂറ് എണ്ണം വേണമെന്ന് അല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു ക കസ്റ്റമർ നിങ്ങൾ പുതിയ കസ്റ്റമറാണെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഓഹ് അറുന്നൂറ് എണ്ണം എടുക്കുവാണെങ്കില് ഒരു നോക്കാ നോക്കാം മുപ്പത് രൂപയ്ക്ക് തരാൻ സാധിക്കുമോ എന്ന് നോക്കട്ടെ അന്നിട്ട് എന്തായാലും നിങ്ങൾ നേരിട്ട് വാ വന്ന് കഴിയുമ്പോളത്തേക്ക് ആ വൈകിട്ട് ഏഴു മണി വരെ ഞങ്ങൾ ഉള്ളൂ ഉള്ളൂ കേട്ടോ ഈ ഷോപ്പ് ഏഴു മണിവരെ ഉള്ളൂ കട ആ സ്ഥലം അറിയാമല്ലോ അല്ലെ അറിയാമല്ലേ ആ ഒരു ഒരു കുഴപ്പവും ഇല്ല പോരെ അപ്പോൾ ആ മുപ്പത് രൂപയ്ക്ക് തരാമെന്ന് നോക്കട്ടെ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ